കേരളത്തിൻ്റെ തനതായ സംസ്കാരം എന്നു പറയുന്നത് കേരളത്തിൽ വിവിധ മത വിശ്വാസത്തിൽ ജീവിക്കുന്നവരുണ്ട് ക്രിസ്ത്യൻ ഉണ്ട് ഹിന്ദുക്കളുണ്ട് മുസ്ലിംസുണ്ട് അതിനകത്തുതന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ യാക്കോബയും മാർത്തോമായ ലാറ്റിൻ അങ്ങനെ ഒരുപാട് ഹിന്ദുക്കൾ ഈഴവർ നായർ വാര്യർ സെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് അങ്ങനെയൊക്കെ പിന്നെ മുസ്ലിംസിലും മുസ്ലിംസിലെ എനിക്കറിയത്തില്ല മുസ്ലിംസും ഉണ്ട് അവരുടെ ആചാരങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തമായ ആചാരങ്ങളാണ് അതു തനതായ തനതായ ആചാരങ്ങളാണ് ക്രിസ്ത്യൻ ഇതിൽ ക്രിസ്മസും ഈസ്റ്ററും ആഘോഷിക്കുന്നെങ്കിൽ കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായ ഹിൻഡ് നമ്മൾ ഓണം കേരളത്തിലുള്ള എല്ലാ ജനതകളും ആ ആ ആചരിക്കുന്നു പിന്നെ ക് ഹിന്ദുക്കളുടെ ആണെങ്കിൽ

പിന്നേ ഇവിടെ ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ളെയൊരു ഇതിൽ ക്രിസ്മസിൻ്റെ നമ്മുടെ ക്രിസ്ത്യൻ ഇതിൻ്റെ ക്രിസ്മസിനോടൊപ്പം തന്നെയാണ് അവർക്ക് ചന്ദന കുടോയെന്നു പറയും അതു നമ്മുടെ ഓരോ സ് ഓരോ സ്ഥലത്തും അവരവരുടെ രീതിയിലുള്ള ആചാരങ്ങൾ കേരളത്തിൽ ആചരിക്കുന്നുണ്ട് അതിലൊന്നും നമ്മുടെ സംസ്കാരത്തിന് ഉതകുന്നുണ്ട് സംസ്കാരിക കളിയായ വള്ളം കളി കേരളത്തിൻ്റെ തനതായ വള്ളം കളി ആറന്മുള വള്ളം കളിയെന്നു പറയുന്നതൊക്കെ വളരെ ഫേമസ് ആയതാണ് നെഹ്റു ട്രോഫി വള്ളം കളി അതിന് അതിമ മനോഹരമാണ് ഞാൻ ടി വിയിലൂടെ കണ്ടിട്ടെ ഉള്ളു എനിക്ക് അതിനെകുറിച്ച് അധികം അറിയത്തില്ല വള്ളംകളി പക്ഷെ വള്ളംകളിയിൽ ആ തുഴയുടെ അതനുസരിച്ചുള്ള ആ ഒഴുക്കിനനുസരിച്ച് എല്ലാവരും ഒരുപോലെ തോഴയെടുക്കുന്നതു ഒക്കെ കണ്ട് കാണാൻ വളരെ മനോഹരമാണ് പിന്നെ തെയ്യം കാവടി പിന്നെ വില്ലടിച്ചാം പാട്ട് നാടൻപാട്ടുകൾ ഇതെല്ലാം അമ്പല അമ്പലത്തിൽ ഓരോ ഉത്സവങ്ങളോടനുബന്ധിച്ച് നടത്താറുണ്ട് തൈപ്പൂയം ആനയെ എഴുന്നള്ളിക്കുന്നത് ഇപ്പോൾ ആനയെ എഴുന്നള്ളിപ്പ് കുറഞ്ഞിട്ടുണ്ട് ആന വളരെ നമ്മുടെ കൺട്രോളിൽ കിട്ടാത്ത കാരണം ആനയെ എഴുന്നള്ളിച്ച് പണ്ട് എൻ്റെ ചെറിയ കാലത്ത് ആനയെ എഴുന്നള്ളിച്ച് ഓരോ വീടുകളിലും വന്നു കൊണ്ടു വന്നു പറയെടുക്കുകയെന്നു പറയും പറയെടുക്കുന്ന ഒരു രീതി ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അങ്ങനെ വീടുകളിലൊന്നും കൊണ്ടുവരുന്നൊരു രീതി ഇപ്പം കാണുന്നില്ല കോതം മൂരിയാട്ടം കൂടിയാട്ടം കോതം മൂരിയാട്ടം കൂടിയാട്ടം ഒക്കെ ഏകദേശം ഒരുപോലത്തെ കലകളാണെന്നു വിചാരിക്കുന്നു എനിക്കു കോതം കൂടിയാട്ടത്തെക്കുറിച്ച് അധികം അറിയത്തില്ല തെയ്യം ആൾക്കാരുടെ മുഖത്ത് പച്ച കുത്തി ഉള്ള ഇതാണ് തെയ്യത്തിൻ്റെ മുഖത്തും ദേഹത്തും ഒക്കെ പടമൊക്കെ കളറു കൊണ്ട് നല്ല പടങ്ങളൊക്കെ വരച്ച് അവരൊരു രീതിയിലാക്കിയിട്ടുള്ള തെയ്യം കളി അവരുടെ മുഖത്തെ എക്സ്പ്രഷൻസ് അതിനൊക്കെയുള്ള ഒരു ഇമ്പോർട്ടൻ്റുണ്ട് ആ എക്സ്പ്രഷൻസിലൂടെയാണ് ക ആ ഈ തെയ്യം നമുക്ക് ആ ഏതിനെ കുറിച്ചും ഏത് സബ്ജക്റ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ സാധിക്കുന്നത് പിന്നെന്താണ് പുലി കളിയുണ്ട് ആൾക്കാരുടെ ദേഹത്ത് പുലിയെ പോലെ വരച്ച് വാലൊക്കെ വെച്ച് പുലി പുലി കളി ഓണത്തിനാണ് പുലി കളി കളിക്കാറുള്ളത്